നമ്മടെ ഭാഷയായ മലയാളം ദ്രാവിഡ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഷയാണ് ഏകദേശം മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി ജനങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്നത് ഇപ്പോള് ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തിച്ചേർന്നിട്ടുണ്ട് കന്നഡ ഭാഷയും തമിഴ് ഭാഷയും മലയാള ഭാഷയ്ക്ക് ഒരുപാട് സ്വാധീനം നൽകപ്പെട്ടിട്ടുള്ള ഭാഷകളാണ് സംസ്കൃത ഭാഷയിൽ നിന്നാണ് ഈ മലയാള ഭാഷയ്ക്ക് കാതലായ ഒരു രൂപം ലഭിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഗ്രാമർ മുഴുവനും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ കന്നഡയുടെ ഒരു ചായ്വും തമിഴിൻ്റെ ചായ്വും ഉള്ള ഭാഷാപ്രയോഗങ്ങളും വാക്കുകളും ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിച്ച് കാണുന്നതായിട്ട് ക ഉപയോഗിച്ച് കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മലയാള ഭാഷ ഇപ്പോൾ നമ്മടെ സർക്കാരും അത് മലയാള ഭാഷയിൽ വേണം കത്തുകള് തയ്യാറാക്കേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതുകൊണ്ട് മലയാള ഭാഷ എല്ലാവരും പൊതുവെ അംഗീകരിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വളർന്നിട്ടുണ്ട്